നമസ്കാരം ഞാൻ അശോക് അപ്പോൾ ഡ്രോയിങ്ങിലെന്ന് മുതലാണെനിക്ക് താല്പര്യം ഉണ്ടായത് ഡ്രോയിങ് മിക്ക കുട്ടികള്ക്കും ചെറുപ്പത്തിലേ താത്പര്യം ഉണ്ടാകുന്ന ഒന്നാണ് ഡ്രോയിങ് ചെറുപ്പത്തിലേ എല്ലാവരും ബുക്ക് എടുത്ത് വരയ്ക്കുന്നത് സ്ഥിരം കാണാറുള്ളതാണ് പക്ഷേ എന്റെ കാര്യത്തിലെനിക്ക് പണ്ട് മുതലേ ഒട്ടും താല്പര്യമില്ലാത്തൊരു സാധനമാണ് ഡ്രോയിങ് അത് ഇപ്പഴും ഏകദേശം അങ്ങനെ തന്നെയാണ് എനിക്കത് പഠിച്ചെടുക്കാൻ ഇഷ്ടം മാതിരി സമയം വേണം അതുകൊണ്ട് ഞാന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെനിക്കൊരിക്കലും ഇഷ്ട്ടപ്പെട്ട് ഇഷ്ട്ടപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ താല്പര്യം ചെറുതായിട്ടെങ്കിലും വന്നത് ഞാന് നേരത്തെ പറഞ്ഞത് മാതിരി ആറാം ക്ലാസിൽ ഡ്രോയിങ് ക്ലാസ് തുടങ്ങിയപ്പോഴാണ് അപ്പോള് ആസ് ഞങ്ങള്ക്ക് ഡ്രോയിങ് പഠിപ്പിച്ചിരുന്നത് സദാശിവന് എന്ന് പറഞ്ഞൊരു സാറായിരുന്നു അപ്പോള് അദേഹത്തിന്റെ ഡ്രോയിങ് ക്ലാസിലൂടെയാണെനിക്ക് താല്പര്യം ഉണ്ടായി തുടങ്ങിയത് അദ്ദേഹം തന്നെ ആറിലും ഏഴിലും എട്ടിലും ഞങ്ങളെ ഡ്രോയിങ് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഡോ ഡ്രോയിങ് ക്ലാസ് ഡ്രോയിങ്ങിനോട് ഇഷ്ടമില്ലെങ്കിലും താല്പര്യം ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് അദ്ദേഹം പിന്നെ പിന്നീട് എന്റെ ഇഷ് ഇഷ്ട്ടപ്പെട്ട കലാകാരന് ഞാന് ഡ്രോയിങ്ങിഷ്ട്ടപ്പെടാത്ത ഒരാളായതുകൊണ്ട് ഞാനങ്ങനെ വലിയ കലാകാരന്മാരെയൊന്നും കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല അത് നോക്കിയിട്ടുമില്ല പക്ഷേ എനിക്ക് താല്പര്യമുള്ളൊരു കലാകാരന് എന്ന് പറയുന്നത് എന്റെ എഞ്ചിനിയറിങ് കോളേജിലെ സുഹൃത്തായ അതുലാണ് അവന് ഇപ്പോൾ എന്റെ പടം എനിക്ക് വരച്ചു തന്നിട്ടുണ്ട് അത് നമ്മള് ഫോട്ടോ എടുക്കുന്ന മാതിരി തന്നെ ഉണ്ട് ഏകദേശം അവനാക്കഴിവ് അവന് ഡ്രോയിങ്ങില് അപ്പം ഞാന് ചോദിച്ച് അവന് ഡ്രോയിങ് പണ്ടേ ഉള്ളൊര് കഴിവാണെന്നാണ് ഞാന് വിചാരിച്ചത് അപ്പം അവന് പറഞ്ഞു അവൻ നാല് വര്ഷം കൊണ്ട് പഠിച്ചേടുത്തൊരു കഴിവാണെന്ന് ഞാന് ഒര് ആറേഴ് വര്ഷമായി കഷ്ട്ടപ്പെടുന്നൊരു സാധനമാണ് അവന് വെറും നാല് വര്ഷം കൊണ്ട് നേടിയത് അപ്പോൾ അവന് ശെരിക്ക് വലിയൊരു ഗോ പടം വരയില് കഴിവുള്ള ഒരാളന്നെയാണെന്നാണ് എനിക്ക് അതില് നിന്ന് മനസിലായത് അവന് ഇപ്പഴും നല്ല ഭംഗിയായി പടം വരക്കുന്നുണ്ട് അവന്റെ പടം വരകൾ കണ്ട് ഞാന് ഇപ്പൊഴും അത്ഭുതപ്പെടുന്നുവുണ്ട് ഇതാണെന്റെ സ് ഇഷ്ട്ടപ്പെട്ട കലാകാരന് നന്നി